ആ ആ ഇങ്ങനെ സാഹചര്യം എന്നു വച്ചാൽ എനിക്ക് കോട്ടയത്തു നിന്ന് എറണാകുളം വരെ യാത്ര ചെയ്തപ്പോൾ ഊബറിൽ ഊബർ ക്യാബ് വിളിച്ച് യാത്ര ചെയ്തപ്പോഴത്തേക്കും അതിന് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ ഡ്രൈവറോട് ഓൺലൈൻ പേയ്മെൻ്റ് പറ്റുവുള്ളൂ കയ്യിൽ ക്യാഷില്ലായെന്നുള്ളൊരു സാഹചര്യം ഉണ്ടായത് അപ്പോഴാണ് അയാളോട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കാർഡ് എടുത്ത് എന്താണ് ക്യാഷ് ലിക്വിഡ് മണിയായിട്ട് ക്യാഷ് കയ്യിലില്ല ഓൺലൈൻ പേയ്മെൻ്റ് പറ്റുമോയെന്നൊക്കെ അപ്പോൾ അയാൾ ഇല്ലയെന്നാണ് പറഞ്ഞത് അപ്പം എനിക്കൊരു ഭയങ്കര ഒരു ഇതുണ്ടായി പൈസ എങ്ങനെ കൊടുക്കാമെന്നുള്ളൊരു ഒരു വേവലാതി എൻ്റെ മനസ്സിലുണ്ടായി അവർ ഈ ക്യാബ് വിളിച്ചതെന്നു വച്ചാൽ കോട്ടയം തൊട്ട് എറണാകുളം വരെയാണ് എറണാകുളം വരെ ഒരു രണ്ടര മണിക്കൂറുണ്ടായി പക്ഷെ എനിക്ക് അവർ അയാളുടെ കയ്യിൽ പേയ്മെൻ്റ് സ്വീകരിക്കാനുള്ളൊരു നിർവ്വാഹമില്ലായിരുന്നത് പിന്നെ എ ടി എമ്മിൽ നിന്ന് തന്നെ പൈസ എടുത്ത് കൊടുക്കേണ്ടി വന്നു അങ്ങനെയുള്ളൊരു സാഹചര്യം ആയിരുന്നു